മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ കോളേജിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ ഹോസ്പിറ്റലിൽ പോയാൽ ചികിത്സിക്കുന്നത് പോലെ മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കില്ല അവിടെ പൈസ കൊടുക്കാത്ത കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുന്ന കാരണം നമ്മൾ നല്ലവണ്ണം ചികിത്സിക്കും പിന്നെ ഗെവൺമെൻറ് ഹോസ്പിറ്റല് പിന്നെ അതിനുള്ള വൃത്തിയും ഇതൊന്നും ഉണ്ടാകില്ല ഗെ പ്രൈവറ്റ് ഹോസ്പിറ്റല് നല്ല വൃത്തിയും ഒക്കെ ഉണ്ടാകും പിന്നെ എന്താ കോവിഡ് കാലത്ത് മനുഷ്യന്മാർ ഹോസ്പിറ്റലക്കൊന്നും പോകാതെ പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരുന്നുങ്ങാണ്ട് വീട്ടിൽ തന്നെ ചികിത്സ സ്വയം ചികിത്സ നേടിയിരുന്നു മാസ്ക് നിർബന്ധമായിരുന്നു മാസ്ക് കിട്ടങ്ങാണ്ട് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളായിരുന്നു കോവിഡ് കാലത്ത് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റല് ഉള്ള മാതിരി വൃത്തിയും ഇതൊന്നും മെഡിക്കൽ കോളേജ് പിന്നെ പ്ര ഗെവൺമെൻ്റ് ഹോസ്പിറ്റല ഉണ്ടാകില്ല എല്ലാവർക്കും വേണ്ടിയുള്ള പിന്നെ ഇതൊക്കെ വേണം നല്ല നോട്ടവും പരിചരണമൊക്കെ വേണം നല്ല ഡോക്ടേഴ്സ് വേണം പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുത്താൽ അവർ നല്ലവണ്ണം ചികിത്സിക്കും ഒക്കെ ചെയ്യും ഈ ജനങ്ങൾക്ക് പൈസയില്ലാത്ത ആൾക്കാർക്ക് ഗെവൺമെൻറ് ഹോസ്പിറ്റലാണ് നല്ലത് അവിടുക്കാണ് വേഗം പോകുക അസുഖം വന്നാലും അസുഖം മാറുന്നുണ്ടോ ഇല്ലേന്നല്ല അല്ല പൈസയില്ലാത്ത ആൾക്കാർക്ക് ആകുമ്പോൾ ഗെവൺമെൻറ്റ്റ് ഹോസ്പിറ്റൽക്ക്ന്നെ പോകുള്ളൂ അവിടുത്തെ ചികിത്സ ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവില്ല ഏതായാലും നല്ല ഡോക്ടറ് വേണം നല്ല വൃത്തി വേണം നല്ല വൃത്തി വേണം നല്ല ഡോക്ടേഴ്സി്റെ പരിചരണം വേണം പിന്നെ ഗെവൺമെൻറ് ഹോസ്പിറ്റലൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റല് നോക്കണത് മാരില്ല നോട്ടൊന്നും നോക്കില്ല അവിടെ അവരൊന്ന് നോക്കിങ്ങാണ്ട് അവരങ്ങനെ മരുന്ന് എഴുതി വിടും പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പൈസ കൊടുക്കുന്നതനുസരിച്ച് നല്ലവണ്ണം നോക്കും അങ്ങനെയൊക്കെ ഉള്ള ഇന്നുണ്ട് പിന്നെ ഗെവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ പൈസ വേണ്ടാ എന്ത് പിന്നെ അഡ്മിറ്റ ആകണമെങ്കിലും എന്താണെങ്കിലും സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ ഇതന്നെയാണ് പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് താങ്ങാണ് താങ്ങാൻ പറ്റില്ല